വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് വയനാട് എന്തു കാര്യത്തിലും ഇപ്പം ഇവിടെ വയനാടിനെ സംബന്ധിച്ചെടുത്തോളം കൂടുതലും കൃഷിക്കാർ കർഷകർ കൂടുതലുള്ള ഒരു ജില്ലയാണ് വയനാട് മറ്റു ജില്ലേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കർഷകർ കൂടുതലാണ് ഇവിടെ വാഴയും കപ്പയും നെല്ലുമൊക്കെ വച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ജില്ല പുരോഗമനത്തിനനുസരിച്ച് വളർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള അങ്ങനെയുള്ള ജോലി എടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പിന്നെ സാമ്പത്തിക രാഷ്ട്രീയ പരിസ്ഥിതിയൊക്കെയായിട്ട് അത് ഒത്തുചേർന്ന് പോകുന്നുണ്ട് മികച്ചതാക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിംഗ് അനാവശ്യ വേസ്റ്റുകളൊന്നും ഒരു സ്ഥലത്തും ഇടാതെ എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാൻ വയനാട് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോകുമ്പം ഫ്ലാറ്റ് സമുച്ഛയമാണ് കൂടുതലും ഇവിടെ അങ്ങനെയില്ല എല്ലാവർക്കും സ്ഥലമുണ്ട് വീടുണ്ട് അപ്പോൾ വേസ്റ്റും അതൊന്നും വൃത്തികേടാക്കിയും സമൂഹം മലിനമാക്കാതെ അതൊക്കെ വൃത്തിയായി സംരക്ഷിക്കപ്പെടാനും നോക്കി നടത്താനുമൊക്കെ വയനാട്ടുകാർക്ക് ഇതാകുന്നുണ്ട് വലിയ രാഷ്ട്രീയമായിട്ട് ഉള്ള തല്ല് തല്ലിപിടികളൊന്നും ഇവിടില്ല സാധാരണ പിന്നെ ഇപ്പം ബത്തേരി എടുത്തു നോക്കിനോക്ക് വേസ്റ്റേയില്ല അവിടെ എന്ത് മനോഹരമാക്കിയിട്ടാണ് അവിടെ പൂച്ചെടികളും വച്ച് വളരെ ഭംഗിയാക്കി കൊണ്ടുനടക്കുന്ന ഒരു സ്ഥലമാണ് ബത്തേരി അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളും ആക്കിക്കൊണ്ടു വരുന്നു മാനന്തവാടി ആക്കിത്തുടങ്ങി ബത്തേരിയിൽ നിന്ന് നേരെ പുൽപ്പള്ളിക്കു പോകണ വഴി ആക്കിത്തുടങ്ങി അങ്ങനെയെല്ലാം പുരോഗമന വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്